തീർച്ചായും ഇന്ത്യയെ രണ്ട് വിഭാഗമാക്കിയാൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയും വിവിധ ഭാഷാ വൈവിധ്യ സംസ്കാരങ്ങളുടെ കലവറ തന്നെയാണ് ഇന്ത്യ ഇന്ത്യയെ രണ്ടുഭാഗം അഥവാ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന രണ്ട് രീതിയിൽ രണ്ടുതരം തിരിക്കാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ഭാഷാ സാംസ്കാരിക എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം ബേ ഭൂഘടന മുതലായവയിലെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട് ഉത്തരേന്ത്യയെ കുറിച്ച് ആദ്യം പറയാ അതാന്ന് നല്ലത് അപ്പോൾ അങ്ങനെ പൊതുവേ വിദ്യാഭ്യാസം കുറവുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞമ്മൾ ദക്ഷിണേന്ത്യയിലായോണ്ട് നമുക്ക് പൊതുവേ അങ്ങനെ തോന്നിയിട്ടുള്ളത് കൂടുതലായും മധുര പലഹാരങ്ങൾക്ക് പ്രചാരമാണ് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്വീറ്റ്സ്ണ്ട് പൊതുവെ രസമാണ് അവിടത്തെ കാലാവസ്ഥ പറയാണെൽ കുറച്ച് ചൂട് കൂടുതലാണ് പിന്നെ പൊതുവെ വിദ്യാഭ്യാസം കുറവാണ് അതുകൊണ്ടെന്നെ ഒരുപാട് കലാപങ്ങൾ നടക്കുന്നതായിട്ട് ഞമ്മൾ അറിയും അറിയാൻ അറിയാറുണ്ട് ഒരുപാട് കലാപങ്ങൾ വെറുതെ അടിച്ച് കൊല്ലാ അങ്ങനത്തൊക്കെ കലാപങ്ങളൊക്കെ പിന്നെ വീട് വസ്ത്രം ഭക്ഷണം അതിനൊക്കെ കുറച്ച് കുറവാണ് ഉത്തരേന്ത്യ ഉത്തരേന്ത്യ അതിലൊക്കെ കുറച്ച് പിന്നോട്ടാണ് കായിക രംഗങ്ങളിലൊക്കെ കൂടുതലും ദക്ഷിണേന്ത്യനെ കാട്ടിലും കൂടുതൽ അറിയപ്പെടൽ ഉത്തരേന്ത്യേത്തെ ആൾക്കാരാണ് അതേപോലെ ഇഞ്ഞി അഔട്ത്തെ ഭൂഘണ്ഡന്ന് പറഞ്ഞാൽ മഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട് മരുഭൂമിയുണ്ട് അങ്ങനെ പുയ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെണ്ട് കടൽ പൊതുവെ കുറവാണ് കടൽഭാഗം പൊത് പൊതുവെ കുറവാണ് പക്ഷേ ദക്ഷിണ ദക്ഷിണേന്ത്യയിലെ മുക്കാൽ ഭാഗവും കടൽ ഭാഗങ്ങളാണ് ദക്ഷിണേന്ത്യൻൽ വിദ്യാഭ്യാസം കുറച്ച് കൂടുതൽ ദക്ഷിണേന്ത്യയിലാണ് അതുകൊണ്ടെന്നെ ഇങ്ങനെ കലാപങ്ങളൊക്കെ കുറവാണ് സാക്ഷരത കൂടുതലാണ് വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ഉത്തരേന്ത്യയന്റെ അത്ര വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ദക്ഷിണേന്ത്യയിലില്ല പൊതുവെ ഈ എരു എരുള്ള ഭക്ഷണങ്ങളോടാണ് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യക്കാർക്ക് ഇഷ്ടം ദക്ഷിണേന്ത്യക്കാർ കൂടുതലും ഉത്തരേന്ത്യക്കാർ പല വ്യത്യസ്തമായ ഇതൊന്നൂല്ലാ എന്താപറയാ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളൊന്നുമില്ല പൊതുവെ വസ്ത്രങ്ങൾ കുറവാണ് പിന്നെ ജോലി സാധ്യത ഇവിടെയാണ് കൂടുതൽ ജോലി സാധ്യതകൾ ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലാണ് കൂടുതൽ വേതനം ജോലിക്കടിസ്ഥാനമായി വേതനം കൂടുതൽ ലഭിക്കുന്നത് ദക്ഷിണേന്ത്യയിലന്നെയാണ് ഉത്തരേന്ത്യനേ സംബന്ധിച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലാണ് വേതനം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം മൊത്തത്തിൽ നോക്കാണെങ്കിൽ ദക്ഷിണേന്ത്യയന്നെയാണ് ഇന്റൊരഭിപ്രായത്തിൽ